മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ വേരുകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വേരുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണ്ട് ജനിച്ച് വളർന്ന ഓരോ ടൈമും കാര്യങ്ങളൊക്കെ അവര് ഓർത്ത് വെക്കും ഇപ്പോൾ എൻ്റേതുതന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എപ്പോഴും എൻ്റെ അമ്മേൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ തിരിച്ചു പോവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇപ്പോൾ അമ്മയ്ക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ അമ്മമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആറ് ആറ് മക്കളാണ് അപ്പോൾ ആറ് പേർക്കും ഈ രണ്ടു പേര് വെച്ചിട്ട് മൊത്തം കുറേ പിള്ളേരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം എൻ്റെ ഏജ് തൊട്ട് ഇപ്പോൾ എൻ്റെ മാമൻ്റെ രണ്ട് പിള്ളേര് അവരെന്നെ കാട്ടൊക്കെ മൂത്തതാണ് ഇപ്പോൾ വർക്കിലൊക്കെ ആണെങ്കിലും അവര് നമ്മള് കോണ്ടാക്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അവരും ആയിട്ട് വലിയ മിംഗ്ലിംഗും കാര്യങ്ങളൊന്നും ഇല്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല രീതിയില് എല്ലാരും ആയിട്ട് മിംഗ്ലിംഗും ചെയ്ത് നമ്മള് സാറ്റ് കളി പിന്നെ ക്രിക്കറ്റ് കളി അങ്ങനത്തെ ഓരോ കളികളൊക്കെ കളിച്ച് സാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർമ്മയാണ് അപ്പോൾ ആ തറവാട്ടിലൊക്കെ പോയി നിൽക്കുക അങ്ങനത്ത കാര്യങ്ങൾ നമ്മള് കളിയാക്കുക കളിക്കുക ഇപ്പോൾ എൻ്റെ മാമൻ്റെ മോൻ്റെ വീടാണ് ഈ തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെയൊക്കെ പോയി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിലേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും കൊതിക്കുന്നുണ്ട്